എനിക്ക് ഏറ്റോം ഇഷ്ടമുള്ളത് എന്താന്നു ചോദിച്ചാൽ പാട്ട് അത് എനിക്ക് എന്റെ ജീവനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പോലെയാണ് ആ പാട്ട് പാട്ടു കേൾക്കാനും പാടാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ വീട്ടിൽ എല്ലാവരും തന്നെ പാട്ടു പാടുന്നവരാണ് എന്റെ വല്യപ്പച്ചന് മുതൽ വഞ്ചിപ്പാട്ട് പാടുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ ഒരു പാരമ്പര്യം ഞങ്ങള്ക്കെല്ലാവര്ക്കും ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ട്ടമുള്ള കാര്യാമാണ് ഞങ്ങൾക്ക് പാട്ടു കേൾക്കുന്നതും പാട്ട് പാടുന്നതും ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പഴയ പാട്ടുകളാണ് ഏറ്റോം ഇഷ്ട്ടം പുതിയ പാട്ടുകൾ ഇഷ്ട്ടമില്ലെന്നല്ല നല്ല നല്ല പാട്ടുകൾ പുതിയത് ഉണ്ട് പക്ഷേ എങ്കിലും മനസ്സില് ഇടം നേടിയിരിക്കുന്നത് പഴയ പാട്ടുകൾ തന്നെയാണ് ഒരുപാട് എന്റെ അപ്പച്ചന് മുതലേ ഞാന് പറഞ്ഞില്ലേ ഒരുപാട് പാട്ടുകൾ നമ്മുടെ വീട്ടിലിങ്ങനെ കേട്ടോണ്ട് ഇരുന്നത് കൊണ്ട് തന്നെ എനിക്ക് പഴയ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും മനസീന്നു മായാതെ കിടക്കുന്ന ഗാനങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി നല്ല നല്ല ഗാനങ്ങൾ അന്നൊക്കെയുള്ള പാട്ടുകളെ വെച്ച് ഇന്നത്തെ പാട്ടുകള്ക്ക് അത്രയും ഒരു അര്ത്ഥവത്തായ വരികളൊന്നും അല്ലെങ്കിൽ തന്നെ കുറെ പാട്ടുകളൊക്കെ നന്നായിട്ട് ഉണ്ട് എങ്കിൽ തന്നെ ചില പാട്ടുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി പാട്ടുകൾ പുതിയ പാട്ടുകൾ ഇപ്പോൾ ഉണ്ട് പക്ഷേ പഴയ പാട്ട് നോക്കിയാൽ അങ്ങനെയല്ല എല്ലാ പാട്ടും ഒന്നിനൊന്ന് നല്ലത് മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള പാട്ടുകളാണ് ഹിന്ദി പാട്ടുകളാണേലും മലയാളം ആണേലും ഒക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ട് പാട്ടുകളുണ്ടായിരുന്നു എല്ലാം തന്നെ നല്ല പാട്ടുകളാണ് എന്റെ അപ്പച്ചനാണേലും ഇങ്ങനെയിരുന്നു പാടുമ്പോൾ ഞങ്ങൾ പഴയ പാട്ടുകളൊക്കെ അപ്പച്ചനെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിക്കും എന്റെ മക്കളാണേലും ഇപ്പോൾ എന്നെ കൊണ്ടമ്മ ആ പാട്ട് പാടമ്മ ഈ പാട്ട് പാടുവോ ഓരോ പാട്ടുകളും പാടിപ്പിക്കാറുണ്ട് ഭയങ്കര യേശുദാസിന്റെ സോങ്ങ് പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കേട്ട് മതിതീരാതെ കിടക്കുന്ന പാട്ടുകളാണ് ഡിവോഷണല് സോങ്ങാണേലും ഒക്കെ ഞങ്ങൾ കേള്ക്കാറുണ്ട് നല്ല നല്ല പാട്ടുകൾ കേള്ക്കാറുണ്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് പാട്ടുകളൊക്കെ കേൾക്കുമ്പം നമ്മുടെ മനസിന് തന്നെ ഭയങ്കര എത്ര അസുഖങ്ങളുണ്ടേലും നമ്മുടെ മനസ് ആ ഒരു അസുഖത്തെ ആ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു പകുതി കൂടുതൽ അസുഖങ്ങൾ മാറി പോകുന്നത് കണക്കാണ് എനിക്ക് ഇപ്പോൾ തോന്നാറുള്ളത് ഞാന് കിടന്ന് ഉറങ്ങുന്ന സമയത്തും നല്ല പഴയ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ അതാ എനിക്കിഷ്ടം പഴയ പാട്ടുകൾ കേട്ടോണ്ട് കിടക്കുന്നതാണ് അത് വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പാട്ടുകൾ കുറെ കളക്ഷന്സ് ഉണ്ട് എന്റെ കൈയ്യിൽ ആ പാട്ടുകൾ ഞാനാ സമയം വൈകിട്ടൊക്കെ എപ്പോഴെലും പിന്നെ ഞാൻ പകലാണേലും ജോലി ചെയ്യുന്ന സമയത്താണേലും നമ്മുടെ റേഡിയോ എഫ് എം വെച്ച് കേട്ടുകൊണ്ടായിരിക്കും പഴയ സോങ്ങുകളൊക്കെ വരുമ്പം ബാല്യത്തിലേക്ക് ഭയങ്കരമായിട്ട് തിരിച്ചു പോകുന്ന കണക്കുള്ള രീതി ആ ഒരു ഫീലിങ്ങ് എനിക്ക് നന്നായിട്ട് കിട്ടാറുണ്ട് എന്റെ അപ്പച്ചന് പാടുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണേലും അപ്പച്ചന്റെ ഒരു സാമീപ്യം എനിക്ക് കിട്ടാറുണ്ട് അപ്പച്ചന് ഇരുന്നു പാടുന്ന പോലെ തന്നെ എഫ് എമ്മിൽ കൂടെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ട്ടാ മാണ് എന്റെ ജിവിതത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താന്ന് ചോദിച്ചാല് ഞാന് പാട്ടെന്നു തന്നെ പറയും വളരെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് എനിക്കത് കൊണ്ട് പോകേണ്ടത് പിന്നെ വീട്ടിലാണേൽ എന്റെ ഹസ്ബന്റിനാണേലും എന്റെ കുഞ്ഞുങ്ങളാണേലൊക്കെ നന്നായിട്ട് പാടും കുഴപ്പം ഇല്ല പിന്നെ മോനാണേലും കീബോഡൊക്കെ ഞങ്ങൾ എന്തെയ്യും മോനെ കൊണ്ട് കീബോഡ് വായിപ്പിച്ചിട്ട് ഞാനിരുന്നു പാടും നല്ല നല്ല പാട്ടുകളൊക്കെ പാടും പഴയ പാട്ടുകളൊക്കെ അത് നമുക്ക് എന്താ ഒരു റിലാക്സേഷന്ന്ന് പറയാന് പറ്റത്തില്ല പാട്ടുകൾ പാടുമ്പോൾ കേൾക്കുമ്പോഴും ഞങ്ങൾ വാഹനത്തിലാണല്ലോ യാത്ര ചെയ്യുമ്പോഴും ഞാന് ഫുള്ള് ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടേ പോവും അപ്പോൾ അതിങ്ങനെ കേട്ടോണ്ട് പോവാന് തന്നെ ഒരു സുഖാമാണ് നമ്മുടെ യാത്ര നമുക്ക് എത്തിച്ചേരണ്ട സ്ഥലം എത്ര ദൂരത്താണെങ്കിലും ഈ പാട്ടുകൾ കേട്ട് കൊണ്ടിരിക്കുമ്പോഴേക്ക് നമ്മൾ എത്തുന്നത് പോലും അറിയാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ പാട്ടുകളിൽ ഒത്തിരി സുശീലാമ്മയുടെ പാട്ടുകളാണ് പിന്നെ ജാനകി അമ്മേടെ പാട്ടുകളും ഒക്കെ കേട്ടാൽ ഒരമ്മയുടെ വാല്സല്യം ആണോ എനിക്കറിയില്ല അങ്ങനത്തൊരു ഒരു ഫീലീങ്ങാ നമുക്ക് ജാനകിയമ്മേടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചിത്ര ചേച്ചി ഇവരുടെ എല്ലാ പാട്ടുകൾ എനിക്കിഷ്ടവാണ് പിന്നെ പഴയ ഗസല് പാട്ടുകൾ അതൊക്കെ കേൾക്കാറുണ്ട് ഹിന്ദി ഗസല് സോങ്ങാ ഉള്ള അങ്ങനെയൊക്കെയാണ് പാട്ടിനോടുള്ള ഇഷ്ടം പഴയ പാട്ടുകളെന്നു പറഞ്ഞാൽ നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും നമ്മളതിന്റെ വരികളൊന്നും മറന്ന് പോവത്തില്ല പക്ഷേ പുതിയ പാട്ടുകളെന്ന് പറഞ്ഞാൽ അതിന്റെ വരികൾ തന്നെ പഠിക്കാന് നമുക്കിച്ചിരി അത്രയും നമുക്ക് പെട്ടന്ന് പഠിക്കാന് പറ്റത്തില്ല പക്ഷേ പഴയ പാട്ടുകളുടെ വരികൾ നമ്മളിന്നും ഓര്ത്തു വെയ്ക്കുന്ന പോലെയാണ് നമ്മുടെ മനസിലെപ്പോഴും തറഞ്ഞു കിടക്കും പുതിയ പാട്ടുകള് അങ്ങനല്ല നമുക്ക് ട്യൂണ് കിട്ടും പക്ഷേ വരികൾ കൃത്യമായിട്ടൊന്നും ഓര്മ്മ വരത്തില്ല അത്യാവശ്യം എനിക്കിഷ്ടം കൂടുതലും പഴയ പാട്ടുകൾ തന്നെ